വിദ്യാഭ്യാസ ലോണെന്നു പറഞ്ഞാല് എന്താണു പറയുക സത്യം പറഞ്ഞാല് അതൊരു വലിയ അനുഗ്രഹമാണ് കാരണം അധികം ഇപ്പോള് അധികം ഈ നമ്മുടെയൊരു നാട് എടുത്തുനോക്കുകയാണെങ്കില് ഒരു പഠിപ്പിക്കാൻ നമ്മള്ക്ക് ഡിഗ്രി വരെ പ്ലസ് റ്റു ആയിക്കഴിയുമ്പോള്ത്തന്നെ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഏകദേശം ഒരു മിഡിൽ ക്ലാസ് മെന്റാലിറ്റി വച്ചു നോക്കുകയാണെങ്കില് അവരൊക്കെ പൈസ തീർന്നിരിക്കും കാരണം ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് ഭയങ്കര എന്താ പറയുക എക്സ്പെൻസാണ് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനു നല്ല എക്സ്പെൻസാണ് സോ ഈ അങ്ങനത്തെ ഒരു സന്ദർഭത്തില് ഈ വിദ്യാഭ്യാസ ലോണെന്നു പറഞ്ഞാല് എന്താണു പറയുക ഒരു സത്യം പറഞ്ഞാല് നമ്മളൊരു ഭാവിയിലേക്കുള്ളൊരു ബെസ്റ്റ് നമ്മളെ കൈ പിടിച്ചുയര്ത്തുകയാണ് കാരണം എന്താണെന്നുവച്ചാല് ഈ വിദ്യാഭ്യാസ ലോണ് ഉണ്ട് എന്നുണ്ടെങ്കില് ഇപ്പോള് ഒരു മൂന്നുനാലു വർഷത്തിനു നമുക്ക് മൂന്നുനാലു വർഷത്തിൻ്റെ ഉള്ളില് അറിഞ്ഞു പഠിച്ചുകഴിഞ്ഞതിനുശേഷം തിരിച്ചടവു തുടങ്ങിയാല് മതി അപ്പോള് എന്താണു പറയുക ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടാണ് പ്രത്യേകിച്ച് എനിക്കറിയാം എനിക്ക് ഒരുപാട് മാതൃകകളറിയാം എൻ്റെ ചങ്ങാതി ഫൈസല് അവന് ഇതേപോലെ തന്നെ ജർമ്മനിയിലേക്കു പോകണം ഒരിക്കലും നമ്മളൊരു മിഡിൽ ക്ലാസ് മെന്റാലിറ്റിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല ഒരു എട്ട് ലക്ഷ രൂപ വേണം ജർമ്മനയിലേക്കു പോകണമെങ്കില് മിനിമം ഒരു വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടാണ് പോയത് എന്താണ് നമ്മളെ എന്താണു പറയുക ആ ഒരു ഫാമിലി രക്ഷപ്പെടണമെന്നുണ്ടെങ്കില് അവനു ജർമ്മനിയില് പോകേണ്ട അത്യാവശ്യാമായിരുന്നു ആ ഒരു സമയത്ത് ആ കുടുംബത്തിനെ കരകയറ്റിയത് ഈ വിദ്യാഭ്യാസ ലോണ് കൊണ്ടാണ് കാരണം എന്താണെന്നു ചോദിച്ചാല് അത് ഒരു ലൈഫ് സേവിങ്ങ് മൊമെന്റാണ് ഇപ്പോള് നമുക്ക് അത്യാവശ്യം ഇനിയിപ്പോള് ഈ പഠനം കഴിഞ്ഞിട്ട് നമുക്കു പതുക്കെ അച്ഛന് അച്ഛന് തിരിച്ചടച്ചോളും അല്ലാന്നുണ്ടെങ്കില് മകനു തന്നെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാല് പാർട്ട് ടൈമായിട്ട് ജോബ് ചെയ്യാമല്ലോ അപ്പോള് അപ്പോള്ത്തന്നെ തിരിച്ചടയ്ക്കാം അതായത് നമുക്ക് ഒരു അത്യാവശ്യത്തിനു നമുക്കു പഠിക്കാം അല്ലെങ്കില് വിദ്യാഭ്യാസത്തിന് കായ് പൈസ ഇല്ല എന്നു കാണുകയാണെങ്കില് നമുക്ക് എന്താണു പറയുക ഒരു രക്ഷകനെ പോലെ എത്തുന്ന ഒരു സംഭവമാണ് ഈ വിദ്യാഭ്യാസ ലോണ് ഒരുപാട് ആളുകള് ഇപ്പോള് എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകള് വിദ്യാഭ്യാസ ലോൺ എടുത്തുകൊണ്ട് വിദേശത്തും അവിടെയൊക്കെ പഠിക്കാൻ പോയി ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എന്നോട് ചോദിക്കുകയാണെങ്കില് ഞാൻ പറയും ലോണെടുക്കാം പക്ഷേ ഒരിക്കലും തിരിച്ചടവു മുടക്കാതിരുന്നാല് മതി ഏ തിരിച്ചടവ് മുടക്കുമ്പോഴാണ് പിന്നെ പ്രശ്നം വരുന്നത് പ്രശ്നം വരുന്നതെന്താണെന്നുവച്ചാല് പിന്നെ നമ്മുടെ എന്താണോ പണയം വച്ചത് അത് വീടാണോ ആധാരമാണോ നമ്മുടെ സ്വത്താണോ പറമ്പാണോ അതൊന്നും നോക്കുകയില്ല തിരിച്ചടവു മുടങ്ങിയാല്പ്പിന്നെ അവരുടെ കണ്ണില് ചോരയുണ്ടാവില്ല അപ്പോള് എന്തു ചെയ്യാം അതിനൊക്കെ കഴിയും അങ്ങനെ ശുഭാപ്തി വിശ്വാസമുണ്ട് പിന്നെ പഠിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കില് എന്തായാലും വിദ്യാഭ്യാസ ലോണെടുത്തു പഠിച്ചിട്ടുണ്ടെങ്കില് ഒരു കുഴപ്പവുമില്ല കാരണം നമ്മള് എനിക്കറിയാം അത്യാവശ്യം ടോപ്പൊന്നുമല്ല എന്നാലൊരു മിഡില് മിഡില് ആവറേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും എന്താണു പറയുക ഇ ഒരു നല്ല ഡിഗ്രിക്ക് നല്ലൊരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കില് അവന് ഈ ലോണെടുത്ത് പോയിക്കൊണ്ട് രക്ഷപ്പെടുന്നതിലൊന്നും ഒരു തെറ്റുമില്ല ഞാന് എപ്പോഴും പ്രൊമോട്ട് ചെയ്യും കാരണം എന്താണെന്നുവച്ചാല് അത് അത്യാവശ്യമാണ് നമ്മുടെ എന്താണു പറയുക നമ്മൾക്കൊന്നും ഇല്ലാത്ത നേരത്തൊരു കൈ പിടിക്കാന് ദൈവം അയച്ചുതരുന്നൊരു സാധനം മാതിരിയാണ് ഈ വിദ്യാഭ്യാസ ലോണ് എന്നോട് ചോദിക്കുകയാണെങ്കില് ഞാൻ പറയും കണ്ണും പൂട്ടിയെടുക്കാം അവനവന് ഗട്സുണ്ടെന്നുണ്ടെങ്കില്